നമ്മൾ വയനാട്ടിൽ ഒരു പിന്നെ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോകാൻ വേണ്ടി ആയിരുന്നേ അപ്പം നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആയിരുന്നു

എന്നാൽ നിങ്ങളുടെ അവിടെ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ആ മസാല ദോശ അങ്ങനെ ഒക്കെ ഉണ്ടോ അപ്പോൾ മസാല ദോശ വെള്ളയപ്പം പിന്നെ ഇടിയപ്പം ഇങ്ങനെ ഉള്ള എല്ലാം ഉണ്ടോ

നമ്മൾ ഒരു അമ്പത് പേർ വരാൻ വേണ്ടി ആയിരുന്നേ മോർണിംഗ് നോൺ വെജ് വേണ്ട കാരണം നമ്മൾ തിരുനെല്ലി അമ്പലത്തിൽ നിന്ന് വരുന്നതാണ് അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് പിന്നെ നമ്മൾ നാലമ്പല യാത്ര ചെയ്യാൻ വേണ്ടി ആയിരുന്നേ വരുന്ന വഴിക്ക് നിങ്ങളുടെ അവിടെ കയറാൻ വേണ്ടി ആയിരുന്നു

ആ അതെ നോൺ വെജ് ഒന്നും പാടില്ല ആണ് നമ്മൾ ഏപ്രിൽ ട്വൻറ്റി ഫസ്റ്റിനാണ് വരുന്നത് മ് ആ താമസ സൗകര്യം നമുക്ക് ഒന്ന് ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടിയുള്ള അതായത് ഡ്രസ്സ് മാറാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ ഒക്കെ എന്തെങ്കിലും ഇതുണ്ടോ ആ ഓക്കെ അപ്പോൾ റെന്റ് ഒക്കെ വളരെ കൂടുതൽ ആവുവാണെങ്കിൽ നിങ്ങൾ ആ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യില്ലേ ആ ആ വേറെ വേറെ ഒന്നും ഇല്ല പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നമ്മൾ ഉറപ്പില്ല പക്ഷേ നിങ്ങൾക്ക് സദ്യ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ നിങ്ങളുടെ അവിടെ ആ നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പം നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാകത്തിലായിരിക്കും ചിലപ്പം നമ്മൾ ഉച്ചയ്ക്ക് വരുമായിരിക്കും

ആണല്ലേ ആ ഹാ ഹാ ആ ആ ഓക്കെ എന്നാൽ നമ്മൾ അങ്ങനെ ആണെങ്കിൽ നമ്മൾ എന്തായാലും വരും അപ്പം എന്താണെന്ന് തലേ ദിവസം എന്തായാലും വിളിക്കാം നമ്മൾ അപ്പം നി അതിനെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടി ആ ഓക്കെ ഓക്കെ ഓക്കെ